ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ ഇത് ജെസ്സിയാണ് ഇത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതു വരെ കിട്ടുന്നില്ലല്ലോ എന്താണ് കാര്യം ഞാനും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ വിറക് അടുപ്പിലാക്കെയാണ് തീ കത്തിക്കുന്നത് ഇനി എന്നാണ് സംഭവം എന്നറിയത്തില്ല ഇതിന് തിരിച്ച് റിപ്ലേ തരണേ ഓ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ അതുവാണേൽ അങ്ങനെയാണണെങ്കിൽ അറിയിക്കണേ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടും മൂന്ന് മാസം കഴിഞ്ഞു നേരത്തെ അതേ നന്നായിട്ടെല്ലാം കറക്റ്റ് ആയിട്ടാണ് രണ്ടാഴ്ച് കൂടുമ്പം അല്ലേ മൂന്ന് ആഴ്ചയിൽ കൂടുതൽ പോകത്തില്ലായിരുന്നു ബുക്ക് ചെയ്തിട്ട് ഇത് ഇപ്പം ബുക്ക് ചെയ്ത് മൂന്ന് മാസം വരെ കാത്തിരിക്കേണ്ടതായും ഭയങ്കര കഷ്ടമാണ് പിള്ളേരൊക്കെ പഠിക്കുന്ന പിള്ളേരക്കെയാണ് അവർക്ക് രാവിലെ ഏഴരക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതക്കെയാണ് ഇപ്പം ഗ്യാസില്ലെങ്കിൽ ഒരു തരത്തിലും പറ്റത്തില്ല അവര് രാവിലത്തെ കാപ്പിയും ഉച്ചക്കെത്തെ ഭക്ഷണവും കൊടുത്ത് വിടേണ്ടതല്ലേ അത് തന്നെ ആണ് ഇതിൻ്റെ പ്രശ്നം അതിന് എന്താണ് അവിടെ പരിഹാരം ഒന്ന് നിർദ്ദേശിക്കണം പിന്നെ ഗ്യാസിൻ്റെ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ ഗ്യാസിൻ്റെ വില കൂടുന്നതിന് അനുസരിച്ച് ഗ്യാസിൻ്റെ പൈസ നമ്മൾ കൂട്ടി തരുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ഗ്യാസ് ബുക്കിങ്ങിൻ്റെ ഗ്യാസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഇനി അവിടെ വന്ന് കംപ്ലൈൻ്റ് ചെയ്യണോ ഇനി ആരോടാണ് കംപ്ലൈൻ്റ് ചെയ്യണേ അതൂം കൂടെ ഒന്ന് പറയണേ പിന്നെ ഗ്യാസ് ഗ്യാസ് അയൽവക്കക്കാരോട് പോലും മേടിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു നിശ്ചയമില്ല ഇത് എന്ന് കിട്ടുന്നതെന്ന് കിട്ടുവാണെങ്കിൽ ഒരാഴ്ചക്ക് അകം കിട്ടുമെന്ന് പറഞ്ഞ് വേണേ മേടിക്കാം പക്ഷേ ഇത് മൂന്ന് മാസം വരെ ആരെങ്കിലും നമുക്ക് തരുമോ ഗ്യാസ് ഈ മഴക്കാലത്ത് വിറക് പോലും കത്തത്തില്ല കാരണം മഴക്കാലം ആകുമ്പോൾ വിറക് എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും ഭയങ്കര പാടാണ് ഒന്ന് തീ പിടിപ്പിച്ചെടുക്കാൻ പിള്ളേരെ സ്കൂളിൽ വിടണം പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകണം എനിക്ക് ജോലിക്ക് പോകണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ച് തരണമെന്ന് ഏറ്റവും താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്താണ് പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ അത് ഞങ്ങൾക്ക് അറിയത്തില്ല ആരുടെ പ്രശ്നമാണെങ്കിലും ഇതൊന്ന് പരിഹരിച്ച് തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഓക്കേ

ഒത്തിരി സ്നേഹത്തോടെ ഈ കാര്യം ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളോട് പറയുകയാണ് അവതരിപ്പിക്കുകയാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റു ഓക്കേ താങ്ക് യു സോ മച്ച് ബൈ